ഹലോ അക്കഡിയ റസ്റ്റോറൻ റസ്റ്റോറൻറ്റല്ലെ എനിക്കും ഇന്ന് വൈകിട്ടത്തേക്കും നാളെ രാവിലേയ്ക്കും ഞങ്ങൾക്കൊരു യാത്രയാണേ യാത്രയ്ക്ക് വൈകിട്ടത്തെ ഫുഡും പിന്നേ രാവിലത്തെ ഫുഡും ഞങ്ങൾക്ക് പായ്ക്ക് ചെയ്ത് തന്ന് വിടണേ തണുത്ത് പോകരുത് നല്ല ചൂടോടുകൂടെ ഇരിക്കണം കേട്ടോ പിന്നെ വൈകിട്ടത്തേയ്ക്ക് ചപ്പാത്തിയും കറിയും ആയിക്കോട്ടെ ഗ്രീൻ പീസ് കറിയും ചപ്പാ ചപ്പാത്തിയും അതിന്റെകൂടെ അത് നല്ല ചൂടോടുകൂടി ഇരിക്കണേ അപ്പോള് നിങ്ങളത് പായ്ക്ക് ചെയ്യുന്നത് പിന്നെ തണുത്ത് പോകരുത് കേട്ടോ തണുക്കാതെ ചെയ്ത് തന്നു വിടണേ അപ്പോള് ചൂടോടെ ഫുഡ് കഴിക്കാനായിട്ടാണേ അപ്പോള് രാവിലത്തേയ്ക്കും പിന്നേ ചപ്പാത്തി തന്നെ മതി അപ്പോള് അത് നമുക്ക് തണുക്കാതെ നല്ല നിങ്ങള്ക്കറിയാമല്ലോ അതിൻ്റെ കണ്ടെയ്നറുകളിലാക്കിയേ വേണേ പായ്ക്ക് ചെയ്ത് തരാനായിട്ടേ നമുക്ക് തണുത്ത കഴിഞ്ഞാല്പ്പിന്നെ ആർക്കും ഇഷ്ടമല്ലേ അതുകൊണ്ടാണ് കേട്ടോ അപ്പോള് അത് നന്നായിട്ട് പായ്ക്ക് ചെയ്ത് കൊടുത്തുവിടണേ കേട്ടോ അപ്പോള് അതിന് കുഴപ്പമൊന്നും വരുത്തരുതേ ഞങ്ങളുടെ വൈകിട്ടത്തെ ഞങ്ങള്ക്കൊരു നീണ്ട യാത്രയാണ് തണുപ്പൊക്കെ ഉള്ള സ്ഥലത്തേയ്ക്കാണു പോകുന്നതേ അപ്പോള് ഞങ്ങള് വണ്ടിയേലാണു പോകുന്നത് അപ്പോള് പുറത്തൊന്നും ഹോട്ടലീന്ന് മേടിച്ചു കഴിക്കാനിഷ്ടപ്പെടാത്തതു കൊണ്ടാണ് കേട്ടോ അതുകൊണ്ട് പിന്നെ ചെല്ലുന്ന സ്ഥലത്തുനിന്നു ബാക്കി കഴിക്കാമല്ലോ അപ്പോള് ഇന്ന് വൈകീട്ടും നാളെ രാവിലത്തേയ്ക്കുമുള്ള ഫുഡ് ഞങ്ങള്ക്ക് തണുക്കാതെ നല്ല കണ്ടേയ് നല്ല പായ്ക്കെയ്ത് നന്നായിട്ട് തന്നു വിടണേ അപ്പോള് വൈകുന്നേരം ഞങ്ങള് ഉച്ച കഴിയുമ്പോഴത്തേക്കാണേ ഇന്ന് പോകാനുദ്ദേശിക്കുന്നതേ അപ്പോഴത്തേനും ഞങ്ങള്ക്കൊരു രണ്ടു മണി ആകുമ്പോഴത്തേക്ക് തരണേ ഇന്ന് വൈകീട്ടത്തേക്ക് നാളെ രാവിലത്തേക്കും ഉള്ളതേ എന്നാ പിന്നെ ശരി ഓക്കേ